ആ ടീച്ചറെ വാർത്ത കണ്ടായിരുന്നു നാളെയും അവധിയാണ് അതാണ് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് സിലബസ്സ് കമ്പ്ലീറ്റ് ചെയ്യുന്നത് മഴ ഇങ്ങനെ പെയ്യുകയല്ലെ പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ വർഷവും ഇത്ര അവധി ഇല്ലായിരുന്നു എന്നിട്ടും പോഷൻ തീർക്കാൻ ഓട്ടമായിരുന്നു അതെ ഇനി ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സ് വയ്ക്കേണ്ടി വരും പ്രിൻസിപ്പാളിനോട് പറയണം പോഷൻസ്സ് തീർക്കാൻ സ്പെഷ്യൽ ക്ലാസൊക്കെ വയ്ക്കണമെന്ന് സാറ്റർഡെ ഒക്കെ ക്ലാസ്സ് വച്ചാലെ പോഷൻസ്സ് തീർക്കാൻ പറ്റൂ പ്രിൻസിപ്പാള് മീറ്റിങ്ങ് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പം ഇതിനേ കുറിച്ച് പറയുമയിരിക്കും അത് മാത്രമല്ല പിള്ളാരാണെങ്കിൽ സാറ്റർഡെ ക്ലാസ്സ് വച്ചാൽ വരത്തുമില്ല പകുതി പിള്ളേർ മാത്രമേ വരൂ ഉം പിള്ളേരോട് പറഞ്ഞാൽ മാത്രം പോര അവരുടെ പാരൻസിനോടും പറയണം പേരൻസിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കണം പ്രിൻസിപ്പലിനോടും പറയാം ക്ലാസിലെ ലീഡേഴ്സ്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രീ പിരീഡ് കിട്ടുമ്പോൾ പറയണമെന്ന് അപ്പം ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്തു പഠിപ്പിക്കാലോ ഉം ശരി ടീച്ചറെ എന്തായാലും നമുക്ക് മീറ്റിങ്ങിൽ പ്രിൻസിപ്പാളിനോട് പറയാം സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുന്ന കാര്യത്തെപ്പറ്റി ആ ഓക്കെ